പഴയ മാധ്യമം എന്നു പറയുന്നിടത്ത് നമുക്കു പഴയ കാലത്ത് ആൾക്കാരെല്ലാം ചെയ്തുവരുന്നത് ഒന്നെങ്കിൽ നമുക്ക് പത്രം പത്രം മാത്രമാണ് നമുക്കാ അന്നത്തെ അന്നത്തെ മാധ്യമങ്ങളെന്നു പറഞ്ഞതു പത്രം മാത്രമാണ് കാരണമെന്നുപറഞ്ഞാല് നമുക്കാ സമയത്ത് വേറൊന്നും അവൈലബിളല്ലായിരുന്നു നമുക്കവൈലബിളല്ലാത്തൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് പത്രങ്ങൾ മാത്രമായിരുന്നു നമ്മുക്കതിനകത്തെ ഏക ഒരാശ്രയം പത്രത്തിലെന്നു പറയുന്നത് എന്താണ് നമുക്കിപ്പോള് ഒരു വാർത്ത കൊടുക്കുകയാണേലും നമ്മുക്കതിപ്പോള് ഇപ്പോള് ഇപ്പോള് പെട്ടെന്ന് വരുന്നൊരു വാർത്തകളാണേലും വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നൊരു വാർത്തകളാണേലും നമ്മുക്കതൊന്നും പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല അത് കിട്ടുവാനാണേല് നമുക്കൊരു ദിവസം കഴിയും അല്ലെങ്കില് പഴയ മാധ്യമമെന്മനു പറയുമ്പോള് നമ്മുക്കതിൻറ്റേതായിട്ടുള്ള സമയച്ചെലവുകളുണ്ട് അപ്പോള് അത് കുറച്ചുകൂടെ ഭയങ്കര താമസം ഉളവാക്കുന്നതാണ് അപ്പോള് താമസം ഉളവാക്കുന്നൊരു കാര്യം നമുക്ക് ഇഷ്ടമുള്ളതല്ല കാരണം ഇപ്പോള് നമ്മളങ്ങനത്തെരു യുഗത്തിലാണ് ജീവിക്കുന്നത് നമുക്കിപ്പോള് വേണ്ടത് എന്താണെന്നു പറയുകയാണെങ്കിൽ നമുക്കിപ്പോള് വേണ്ടത് നമുക്കു പെട്ടെന്നു കാര്യങ്ങൾ നടക്കുകയും സുതാര്യത്തിൽ കാര്യങ്ങള് നടക്കുകയും പെട്ടെന്നു നമ്മളാ കാര്യങ്ങൾ അറിയുകയും ഇതൊക്കെയാണു നമുക്കു വേണ്ടത് അതാണ് നമ്മൾ ഇപ്പോൾ ഈ യുഗത്തിൽ ഇങ്ങനെ ജീവിക്കാനുള്ള കാരണം അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോള് ഒരു വാർത്ത അറിയാൻ നമുക്കിപ്പോള് താമസം നമുക്കു കുഴപ്പമില്ല എന്നുള്ളതായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ മുതലായിട്ടുള്ള മാധ്യമങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ലായിരുന്നു ഇപ്പോള് കിട്ടുന്നതുകൊണ്ട് നമുക്കങ്ങനത്തൊരു പ്രശ്നങ്ങൾ നമ്മളതിനെപ്പറ്റി ആലോചിക്കുന്നതുപോലും ഇല്ലാത്തതു കൊണ്ട് നമ്മളതിനെപ്പറ്റി നോക്കുന്നില്ല ഇനി പഴയ മാധ്യമങ്ങളിലേക്കു വരുകയാണെങ്കില് പത്രം പത്രമെന്നു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതു പോലെ ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കില് രണ്ടു ദിവസം കഴിഞ്ഞോ അതിന്റെ വാർത്തകൾ നമ്മൾ പുറം ലോകം അറിയുകയുള്ളു പക്ഷെ ഈ പഴയ മാധ്യമങ്ങൾ കൊണ്ട് പല പല നല്ല കഠിനമായ മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു നമ്മള് നമ്മുടെ പഴയ ഒരു കാലത്തിനു വന്നിട്ടുണ്ട് കാരണം പണ്ട് ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രിട്ടീഷ് പോകുവാനുള്ള ഒരു അല്ലെങ്കില് അവരെ അവരുടെ കുറച്ചു നേരത്തെയെങ്കിലും ഉറക്കം കളയാനുള്ളൊരു വലിയൊരു പങ്ക് മാധ്യമങ്ങൾ വഹിച്ചിരുന്നു അതുകൊണ്ട് പഴയ മാധ്യമങ്ങളും മോശം എന്നുള്ളതു പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടെ പെട്ടെന്നു കിട്ടുക എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടാത്തൊരു സംഭവം അതുകൊണ്ട് പഴയ മാധ്യമങ്ങളില് പഴയ മാധ്യമങ്ങള് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമല്ല പഴയ മാധ്യമങ്ങൾ ഇതാണ് ചെയ്യുന്നത് ഇനി നവമാധ്യമങ്ങളിലേക്കു വരുകയാണെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റ് ടി വി മുതലായിട്ടുള്ള സാനങ്ങളാണ് നവമാധ്യമമെന്നു പറയുന്നിടത്തിപ്പോള് എന്താണ് നമുക്കീ കാലഘട്ടത്തിൽ നമുക്കു പത്രം കിട്ടുന്നുണ്ട് പത്രം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ടി വീൽ ടി വിയിൽ നമുക്ക് വാർത്തകൾ കാണാൻ പറ്റുന്നുണ്ട് വാർത്തകൾക്കുതന്നെ ഒരു കുറേ കുറേ ചാനലുകളുണ്ട് നമുക്കോരോ വാർത്തകള് കാണാൻ വേണ്ടിയും പല പല ചാനലുകളും നമുക്ക് ഒരു ഒരെണ്ണം കിട്ടാത്തൊരു സംഭവമാണ് കുറേ നമുക്ക് വാർത്താ ചാനലുകളുണ്ട് അപ്പോള് ഓരോ ചാനലുകളിലും പല പല ന്യൂസ് വച്ച് നമുക്കു കാണാൻ പറ്റുന് പറ്റുക എന്നു പറയുമ്പോള് ഒരേ സമയം നമുക്കു കുറേ വാർത്തകൾ നമുക്കാ കാര്യത്തെ അറിയാൻ പറ്റും അറിയാൻ പറ്റുമ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് പറയുമ്പോള് എന്താ നമുക്ക് പെട്ടെന്ന് കുറേ വാർത്തകള് അറിയാന്നു പറയുന്നത് അതിനേക്കാലും വലിയൊരു മാറ്റങ്ങൾ നമുക്കു വേണ്ട ആവശ്യമില്ല പിന്നെ നവമാധ്യമങ്ങളിലീ പെട്ടെന്നറിയുക എന്നുദ്ദേശിച്ചതെന്നു പറയുമ്പോള് എന്തേലൊരപകടങ്ങളോ ഏതേലും എന്തേലും ഒരപകടങ്ങളോ അല്ലെങ്കിപ്പോള് നമ്മൾ കുറുവാ സംഘത്തിലെ കണ്ടപോലെ എന്തേലുമൊരു അത്യാവശ്യമായിട്ടറിയേണ്ടൊരു ഘടകങ്ങളോ അങ്ങനെ എന്തേലൊക്ക അറിയണോന്നുണ്ടെങ്കിൽ നമുക്ക് നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഡെയിലി ഹണ്ട് മുതലായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ന്യൂസ് ടി വി അങ്ങനെ എന്തേലൊക്കെ നോക്കിയാല് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ ഉള്ളത് നവമാധ്യമങ്ങളില് തന്നെ കുറേ ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളുമാണു വരുന്നത് ആപ്ലിക്കേഷനലിൽ എന്നു പറയുമ്പോൾ നമ്മുക്ക് അപ്പോഴപ്പോള് നടക്കുന്ന വാർത്തകൾ അപ്പോഴപ്പോൾ തന്നെ നമ്മുക്ക് മൊബൈലില് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് വരുന്നതാണ് ഇപ്പോൾ നമുക്ക് നമ്മള് ആപ്ലിക്കേഷനിൽ കയറി പുതിയ വാർത്തകളെന്താണ് എന്നു നോക്കുന്ന പരതുക പരതാതെ തന്നെ നമുക്കതെല്ലാം അറിയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അതിലും വലിയൊരു ഗുണം നമുക്ക് വേറെവിടെയും കിട്ടുന്നില്ല അപ്പോള് നവമാധ്യമങ്ങളും പഴയ മാധ്യമങ്ങളും എല്ലാം ചെയ്യുന്നത് ഒറ്റ കാര്യം തന്നെയാണ് നമ്മുക്ക് ആശയ വിനിമയം ആശയ വിനിമയം നടത്തുക ആശയവിനിമയമെന്നു പറയുമ്പോൾ നമുക്ക് ഓരോ ആശയങ്ങൾ അവിടുന്നും ഇവിടുന്നുമെല്ലാം നമുക്ക് ഒപ്പിച്ചുതരിക അതെല്ലാം നമ്മളൊരു കുടക്കീഴിൽ കിട്ടുന്നതുകൊണ്ടാണ് ആശയവിനിമയമെന്നു പറയുന്നത് ആശയവിനിമയം നമ്മൾ നടത്താൻ വേണ്ടിയാണ് രണ്ട് മാധ്യമങ്ങൾ നടക്കുന്നത് പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നു പറഞ്ഞാൽ പഴയ മാധ്യങ്ങൾ മാധ്യമങ്ങളെന്നു പറയുന്നിടത്ത് ഇതേപോലെ സമയക്കുറവും പിന്നെ നമുക്ക് അതിനകത്ത് ഒരു പത്രത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതും കഴിയാത്തതും ഉണ്ട് പത്രത്തിനകത്താണെങ്കില് ചില വാർത്തകളൊന്നും നമുക്കുൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം പത്രമെന്നു പറഞ്ഞാല് അതൊരു നാലഞ്ചാറ് പേപ്പറുകളില് മാത്രം ഒതുങ്ങുന്നതാണ് അപ്പോഴാ പേപ്പറിനകത്ത് അതിലും കൂടുതൽ നമുക്ക് കാര്യങ്ങളുണ്ടാവും ഒരു ദിവസം നടക്കുന്നുണ്ടാവും പക്ഷേ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് കാണിക്കാൻ പറ്റുക അപ്പോള് കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഭവംന്ന് പറയുന്നത് ഇതേപോലെ നമുക്കോൺലൈൻ നവമാധ്യമങ്ങളിൽ കൂടെ നമുക്കു പെട്ടെന്നുപെട്ടെന്നു കാര്യങ്ങൾ ചെറിയൊരു ചെറിയ വാർത്തകളാണേപ്പോലും അതല്ലാതെ വലിയ വാർത്തകളാണ് ചെറിയ വാർത്തയെന്നു പറയുമ്പോള് നമ്മുടെ ഈ ജില്ലകളിലും നമ്മുടെ ഒരു താലൂക്കുകളില് നടക്കുന്നെ ചെറിയ ചെറിയ വാർത്തകളും അതല്ലാതെ തന്നെ അതല്ലാതെ തന്നെ നമുക്ക് വലിയ വലിയ വാർത്തകളിലിപ്പോരാ ഒരു മുഖ്യമായിട്ടുള്ള ഒരാളുടെ മരണമോ അതല്ലെങ്കിൽ നമുക്ക് ആഭ്യന്തര അല്ലെങ്കില് നമ്മുടെ രാജ്യത്തിനു തന്നെ ഭീഷണി ആയതോ അല്ലെങ്കില് രാജ്യത്തില്ത്തന്നെ നടക്കുന്ന വലിയ വലിയ വാർത്തകളും നമുക്ക് അറിയാൻ പറ്റുകയാണ് അതുകൊണ്ട് വലിപ്പക്കുറവ് സമയ ഇപ്പോള് വലിപ്പമെന്നാല് ഏറ്റവും കൂടുതല് പ്രാധാന്യം ഇതിനാണ് ഏറ്റവും കൂടുതല് പ്രാധാന്യം കുറവിതിനാണ് എന്നുള്ള രീതിയിലെല്ലാം നമ്മുക്കേതു തരം വാർത്തകളും നമുക്കറിയാൻ പറ്റുന്നതാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് നമ്മള് കരുതേണ്ട കാര്യമില്ല പിന്നെയുള്ളത് എന്നു പറയുമ്പോള് ഇതൊക്കെയാണിത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ സമയക്കുറവ് സമയക്കുറവില്ത്തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം പെട്ടെന്ന് തന്നെ കാര്യങ്ങളറിയാൻ പറ്റും പിന്നെ പഴയ മാധ്യമങ്ങളേക്കാളിലും കുറേ കാര്യങ്ങൾ നമുക്കുൾപ്പെടുത്താൻ പറ്റും ഇതെക്കെയാണ് ഏറ്റവും വലിയ വ്യത്യാസം